ഇപ്പോൾ ആ നമ്മുടെ വീടുകളിലേക്കെന്നു ഉദ്ദേശിച്ചത് നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് തിരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നാണ് ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് ജീവിക്കുവാണെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങള് ലഭിക്കുന്നുണ്ട് അതായത് പണ്ട് കാലത്തൊക്കെ ജീവിച്ചവർക്ക് അസുഖങ്ങള് കുറവാണ് സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക് ജോലിസാ ജോലി ഇല്ലാണ്ടൊരു വിലയില്ല ഇപ്പോൾ ഞാൻ സംബന്ധി എന്നെ സംബന്ധിച്ചെടത്തോളം പറയുവാണെങ്കിൽ ഇപ്പോൾ പണ്ട് കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ആളുകൾക്ക് കല്യാണം കഴിക്കാനൊന്നും വല്യ ബുദ്ധിമുട്ടില്ല കാരണം അത്യാവശ്യം ഫാമിലി ബാക്ക് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ പെണ്ണ് കിട്ടുന്നൊരു കാലമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഫാമിലി ബാക്ക് ഗ്രൗണ്ട് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല ജോലി ഇല്ലാണ്ട് എന്താ പറയുക പെണ്ണ് പോലും കൊടുക്കാത്ത ഒരു ഇതാണിത് ഇന്ന് വരുന്നത് അപ്പോൾ എന്താ പറയുക പൊതുവേ ഇന്ന് ദാ ഇപ്പോൾ കേരളത്തില് ജ ജനസംഖ്യ തന്നെ അതുകൊണ്ട് തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്യാവശ്യം എന്താ പറയുക ജനസഖ്യയും കാര്യങ്ങളുമൊക്കെ കൂടാനൊക്കെ ഇന്ന് ആദ്യം വേണ്ടത് ഇത്തരത്തിലുള്ള മെയിൻ ഒരിതാണ് അപ്പം പഴയ കാലത്തേക്ക് പോകുവാണെങ്കിൽ പെണ്ണ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുവേല പിന്നെ എന്താ പറയുക സമാധാന ജോലി സാധ്യതയെല്ലാം അത്യാവശ്യം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം